മലയാളം മാതൃഭാഷയാണ് എൻ്റെയും നമ്മുടെയും ഭാഷയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മലയാളം പിതാവ് എന്നറിയപ്പെടുന്ന വള്ളത്തോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ അങ്ങനെ തുടങ്ങി പലവിധ സാഹിത്യകാരന്മാരും അവരുടെയൊക്കെ അഭിരുചികൾ അറിയിച്ച ഒരു ഭാഷയാണ് മലയാളം ലോകോത്തര ഭാഷകളിൽ ശ്രദ്ധ നേടിയ ഏറെ ചെറിയ സംസ്ഥാനങ്ങൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് മലയാളമെന്നുള്ളത് ലോകത്ത് എവിടെ പോയാലും മലയാളികളെന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല കാരണം മലയാളികൾ അത്രയേറെ പ്രസിദ്ധമാണ് മലയാളി വ്യക്തികളെക്കാൾ കൂടുതൽ അവരുടെ ഭാഷയാണ് അതിന് പ്രധാന കാരണം മലയാളം എന്നുപറയുന്നത് മാതൃഭാഷയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായി ഉപയോഗിക്കുന്നതും മലയാളമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതില്ലെങ്കിൽ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മലയാളം ഭാഷ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന സ്വാധീനം വളരെ വലുതാണെന്ന് നാം മനസ്സിലാക്കണം മലയാളം ലളിതമായ ഭാഷയായതുകൊണ്ട് തന്നെ ഉപയോഗവും വളരെ ലളിതമാണ് നാം മനസ്സിലാക്കേണ്ടത് മലയാളം ഭാഷ മറ്റു ഭാഷക്കാർക്ക് മലയാളം പഠിക്കുവാന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും മലയാളികൾക്ക് മലയാളം സംസാരിക്കാൻ മലയാളം പോലെ ലളിതമാണ് നമുക്ക് കേരളക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായി മലയാളികളാണ് കേരളക്കാരുടെ സ്വഭാവം അങ്ങനെയാകാനുള്ള കാരണം മലയാളത്തിന് വളരെയേറെ പങ്കുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മലയാളിയുടെ സ്വഭാവം നന്നാവുന്നത് അവന്റെ ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവുന്നത് അവന്റെ ഭാഷ നന്നാവുന്നതുകൊണ്ടാണ് ആ ഭാഷ മലയാളമായാല് വളരെ നന്നായി ഓരോ മനുഷ്യനും ഓരോ മലയാളിയും ഓരോ കേരളക്കാരനും അവൻ സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാണെന്ന് നാം മനസ്സിലാക്കാക്കുന്നു കേരളത്തിൽ തന്നെ മലയാള ഭാഷയിൽ തന്നെ വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത രൂപങ്ങളിലും വ്യത്യസ്ത സ്ലാങ്ങുകളും ഉപയോഗിക്കുന്നവരെ നമുക്ക് കാണാം തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉപയോഗിക്കുന്ന മലയാളം വ്യത്യസ്തമാണ് ആശയം ഒന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം വളരെ വ്യത്യസ്തമാണ് അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ വ്യത്യസ്തമാണ് അതു തന്നെയാണ് മലയാളത്തിൻ്റെ മലയാളത്തിലെ മലയാളമായി വേര്തിരിക്കുന്നത് ആ ഒരു മലയാള ഭാഷ നെഞ്ചിലേറ്റി ജീവിക്കാൻ നമുക്കാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ